ഉത്സവം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ബക്രീദൊക്കെയാണെങ്കിൽ പിന്നെ ബിരിയാണി പിന്നെ നെയ്ച്ചോറ് ബീഫ് വരട്ടിയത് ഇപ്പോൾ നെയ്ച്ചോറാണെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ ബീഫ് വരട്ടിയത് പയറ് കറി പ് ക്യാബേജ് തോരൻ അച്ചാറ് തൈര് എന്നിവയാണ് ഉണ്ടാകുക ഇപ്പോൾ ബിരിയാണി ആണെങ്കിൽ അതിൻ്റെ കൂടെ ചമ്മന്തി സാലഡ് അതാണ് ഉണ്ടാകുക ഇപ്പം പിന്നേ ഈ ഓണം ഈ ഓണം വലിയൊരുത്സവമാണല്ലോ അത് നമ്മുടെ ഹിന്ദുമതമല്ലാതെ എല്ലാ മതക്കാരും ആഘോഷിക്കുന്ന ഒന്ന് തന്നെയാണ് ഓണം അപ്പോൾ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സദ്യയാണ് ഒരുക്കുന്നത് സദ്യയെന്ന് പറയുമ്പോൾ ചോറും സാമ്പാറും അതിൻ്റെ കൂടെ ഒരു പത്തിരുപത്തിനാല് കൂട്ടം കറികൾ ഇപ്പോൾ പച്ചടി പിന്നെ ബീറ്റ്റൂട്ട് പച്ചടി അവിയൽ പിന്നെ അതുപോലെ കൂട്ടുകറി പിന്നെ പുളിശ്ശേരി എലിശ്ശേരി ഓലൻ പപ്പടം അതുപോലെ രണ്ട് തരം പായസം അങ്ങനെ ഒരുപാടൊരുപാട് വിഭവങ്ങളാണ് ഓണത്തിനുണ്ടാകുക അതിൻ്റെ കൂടെ പപ്പടമുണ്ടാകും പിന്നെ പായസമുണ്ട് പായസവും പപ്പടവും കൂട്ടി പഴവും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ക്രിസ്തുമസൊക്കെ ആണെങ്കിൽ കേക്ക് ഈ പ്ലം കേക്ക് കൂടുതലായിട്ട് എല്ലാ എല്ലാ സ്ഥല വീടുകളിലും പ്ലം കേക്ക് ഉണ്ടാക്കാനറിയാ ഉന്നവരുണ്ടാക്കും അല്ലാത്തവർ കടകളിൽ നിന്നും വാങ്ങും പിന്നെ അതുപോലെ അ അപ്പോഴൊക്കെ കപ്പയും ഒന്നെങ്കിൽ കപ്പയും ബീഫ് കറിയും അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെ ഇഷ്ടമുള്ളത് തന്നെ ആക്കും ഇങ്ങനെയുള്ള ഒരുപാട് വിഭവങ്ങൾ ഓരോ ഉത്സവത്തിനും മാറി മാറിയാണ് ഓരോ ഡിഷസും ഉണ്ടായിരിക്കുക